ഞങ്ങളുടെ പ്രദേശത്ത് ആഘോഷിക്കപ്പെടുന്ന ചില ആചാരങ്ങളുണ്ട് നമ്മുടെ അപ്പുറത്തൊരു അമ്പലമുണ്ട് അമ്പലമല്ല മന്ദിരമാണ് അത് വർഷത്തിലൊരിക്കൽ മാത്രമേ അവിടെ ഭജന ഉണ്ടാകാറുള്ളൂ അവിടെ ഭജന എല്ലാ എല്ലാ വർഷവും നടക്കാറുള്ള ആചാരമാണ് അവിടെ ടൂറിസത്തിൻ്റെ ആൾക്കാരും സഞ്ചാരികളെല്ലാം വ വരാറുണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമേ നടക്കാറുള്ളൂ അതെങ്ങനെയെന്ന് വെച്ചെങ്കിൽ രാവിലെ ഏഴു മണിക്ക് അവിടെയൊരു പാ ഗാനമുണ്ട് പാട്ട് അത് എല്ലാവരും കൂടി പാടുന്ന പാട്ടാണ് ഏഴു മണി മുതലാണ് അവിടെ തുടങ്ങുന്നത് ആ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ വന്നു കൊണ്ടും പൊയ്ക്കൊണ്ടുമൊല്ലാം നിൽക്കും പക്ഷേ ഏഴു മണി ആകുമ്പോൾ ആരുമുണ്ടാകില്ല കുറച്ച് ആൾക്കാർ തന്നെ ആട്ത്തെ ആൾക്കാർ തന്നെയാണ് ഉണ്ടാകുന്നത് അത് ഒരു എട്ട് ഒൻപത് മണിയാകുമ്പോഴേക്കും രാവിലെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ആൾക്കാർ എല്ലാവരും കസാര എടുത്തിട്ട് പുറത്തിരിക്കും അവിടെ പാട്ടും നിരവധി പരിപാടികളെല്ലാം ഉണ്ടാക്കുക ഉണ്ടാവലുണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമേ ഇങ്ങനെ അവിടെ പരിപാടികൾ നടക്കാറുള്ളൂ അവിടേതെന്നു വെച്ചെങ്കിൽ അവിടെ നിന്ന് ഒരു ഒരു പന്ത്രണ്ട് മണി ആ സമയമാകുമ്പോഴൊക്കെ ഏകദേശം നാട്ടിലത്തെ ആൾക്കാറും അങ്ങോട്ടത്തെ പ്രദേശത്തെ ആൾക്കാറും എല്ലാവരും കൂടി അവിടെ വരും വന്നിട്ട് മറ്റൊ താഴെ ഒരമ്പലമുണ്ട് അവിടുത്തേക്ക് എല്ലാവരും പോകും ലൈനായിട്ട് ജാതയായിട്ടാണ് എല്ലാവരും പോകുന്നത് ആൾക്കാരെല്ലാവരും അടുത്തേക്ക് പോകും കുറെ സാധനങ്ങളും പഴങ്ങളും കുറേ കുറേ സാധനങ്ങളും എന്തെല്ലാം കൊണ്ടാണ് പോകുന്നത് കുട്ടികൾക്കൊക്കെ കുട്ടികളുടെ കയ്യിൽ എല്ലാം ബലൂൺ ഉണ്ടാകും താഴെ അതിൻ്റെ താഴെ കുറച്ച് താഴെയായിട്ട് സന്തയാണ് രണ്ടു ദിവസം മുന്നേ സന്ത വന്നിട്ട് നിൽക്കും സന്തയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ല രണ്ട് മൂന്ന് കുറേ നാലഞ്ചു സന്തയുണ്ടാകും ഒന്ന് ഫാൻസി പീടികയായിരിക്കും പിന്നെ ഒന്ന് ഫുഡിൻ്റെ ആയിരിക്കും ഫുഡെന്ന് പറഞ്ഞെങ്കിൽ ചറുമുറു അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടാകുന്ന അങ്ങനത്തെ ഇത് പിന്നെ കുട്ടികൾ കളിക്കുന്ന കളിക്കോപ്പ് അങ്ങനത്തെ എന്തെല്ലാം സാധനായിട്ടുള്ളതായിരിക്കും ഈ സന്തയെന്ന് പറയുന്നത് എല്ലാവർക്കും പോകാൻ കഴിയും അതിൽ എല്ലാവരും ഞങ്ങൾക്കൊക്കെ അതിൽ അതിൽ കൂടീട്ട് പോകുന്നത് സന്തേന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വരുന്നു അതു മാത്രല്ല ഈ പോയ ആൾക്കാർ പറയുന്നത് നമ്മ പന്ത്രണ്ട് മണിക്ക് പോയ ആൾക്കാർ വേറെ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചിട്ട് വൈകുന്നേരമാകുമ്പോൾ വരും ആ സമയമാകുമ്പോഴേക്ക് വരുന്ന സമയത്ത് നല്ല പടക്കം പൊട്ടിക്കും പിന്നെ എല്ലാ ആൾക്കാറും കുറേ ആൾക്കാരുണ്ടാന്ന് ആടെ പിന്നെ ഉച്ചക്ക് സദ്യ ഉച്ചക്ക് ആടെ ഫുഡുണ്ടാന്ന് ആടെ സദ്യ അങ്ങനെ ഇന്തെല്ലാം പല പല തരത്തിലുള്ള കറികൾ കുറെ കറികളെല്ലാം ഇണ്ടാന്ന് ഞാൻ മുസ്ലിമായതു കൊണ്ടു തന്നെ ഞമ്മ അവിടേക്ക് പോയിട്ടില്ല പക്ഷേ ആട്ന്ന് ഫുഡെല്ലാം കൊണ്ടു പാഴ്സൽ ഫുഡെല്ലാം സദ്യയെല്ലാം എല്ലാവരും ഉണ്ടാകുമല്ലോ സദ്യയെല്ലാം അതെല്ലാം കൊണ്ടു തന്ന്ന് പായസം എല്ലാം കൊണ്ട്തക്ക്ണ് പിന്നെ ഞങ്ങൾ ആടെ ചെല്ലും നിങ്ങൾ വന്നോ പ്രശ്നമൊന്നുമില്ല ഞങ്ങും പോയിന് ഇങ്ങനെ അവിടെ പരിപാടിയെല്ലാം നോക്കാൻ പോയി രാത്രി ടൈം ആകുമ്പോഴേക്ക് ആടെ ഫുള്ളും ആൾക്കാരായിട്ട് ഡാൻസും കുട്ടികളുടെ ഡാൻസും നൃത്തം അങ്ങനെ എന്തെല്ലാം പരിപാടികൾ ഇണ്ടാന്ന് ആ പരിപാടി നോക്കാനെല്ലാം പോണ് എൻ്റെ രണ്ടു കൊല്ലം മുന്നേ അവിടെ നിന്ന് മാജിക്ക് മാൻ വന്നിട്ടുണ്ടായിരുന്നു നാല് നാല് നാല് ദിവസം ഉണ്ടായ പരിപാടിയാണ് അത് വർഷത്തിൽ നടക്കുന്നതാണ് എല്ലാ വർഷവും ആടേ ഇങ്ങനെ ഭജനം നടക്കാറുണ്ട് ഈ പോയ പന്ത്രണ്ട് മണിക്ക് ജാഥ പോയ ആൾക്കാർ തിരിച്ചു വന്നിട്ട് അവർ ആടെ എല്ലാ ആൾക്കാരുണ്ടാ കുറെ ആൾക്കാരുണ്ടാ കുട്ടികളുണ്ടാകും ഫസ്റ്റ് പെൺ പെൺപിള്ളേർ പെണ്ണുങ്ങളാണ് നിൽക്കുന്നത് സെക്കൻഡ് വലിയവർ ഇങ്ങനെ പോകും എല്ലാവരും വരിവരിയായിട്ടാണ് ജാഥ പോകുന്നത് അവരുടെ കയ്യിലെല്ലാം കുറേ പലഹാരങ്ങളെല്ലാം ഉണ്ടാകുന്നു എല്ലാവരും ഒരുപോലെയല്ല കുറെ ആൾക്കാർ കുറേ ഒരേ പോലത്തെ വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുണ്ടാകുന്നത് കുറേ ആൾക്കാർ വേറെ വേറെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടാകുന്നു എല്ലാവരും ഒരേ പോലെയല്ല കുട്ടികളെല്ലാം കളിക്കുന്ന സാധനം താഴെ സന്തയിലാണ് എല്ലാ കുട്ടികളുടെയും നോട്ടം താഴെ സന്തയിലേക്ക് തന്നെയാണ് ഓരെല്ലാവരും സന്തയിലേക്ക് തന്നെ പോകുന്നെപ്പോഴും ആടന്നെ താഴന്നെ ബലൂൺ അങ്ങനത്തെ സാധനം എല്ലാം വാങ്ങാൻ പക്ഷേ നമ്മ പോകുമ്പഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാൻ ആടേ ഒന്നും കിട്ടിയിട്ടില്ല ഫസ്റ്റ്ട്ടാ ഫസ്റ്റ് പോയി രാവിലെ പോയിട്ട് സന്തേന്ന് ചോക്കോബാർ ഐസ് ക്രീം അങ്ങനെ എന്തെല്ലാ ബേ വേണമെങ്കിൽ ബയ്യെ ബയ്യെ ആൾക്കാർ കുറെ വാങ്ങിക്കും സന്ത ആൾക്കാർ രാത്രി പന്ത്രണ്ടു മണിക്ക് മുന്നേ സന്തയെല്ലാം പോയി പിന്നെ ആടെ ആൾക്കാർ വിനോദ സഞ്ചാരികൾക്ക് ആടെ എല്ലാ വിനോദ സഞ്ചാരികളും വരുന്നു ആ ഒരു ദിവസം മാത്രമേ അവിടെ സ്പെഷ്യലായിട്ടുണ്ടാകൂ ബാക്കിയെല്ലാ ദിവസവും സാധാരണ അമ്പലം പോലെ തന്നെയാണ് മന്ദിരം പോലെ തന്നെയാണ് ആ ഒരു ദിവസം വർഷത്തിലെല്ലാ വർഷത്തിലെല്ലാ ഇത് ഒരിക്കലും നടക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് എല്ലാ ആൾക്കാറും ആടെ വരുന്ന് പല പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് അടെ നമ്മള ഈ പ്രദേശത്തെ ആൾക്കാർ മാത്രമല്ല എല്ലാ പ്രദേശത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ആടെ പള്ളിയിലെ ഉറൂസാണ് ഉറൂസെന്ന് പറയുന്നത് എല്ലാം വർഷത്തിൽ അഞ്ചു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉറൂസാണ് മാലിക് ദീനാർ ഉറൂസ് പക്ഷേ ആടെ എല്ലാവരും വരുന്ന് ഇന്ത്യയിലെ തന്നെ ആൾക്കാർ ഫുള്ളും അത് ആടെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ആടെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ് ആടെ വേറെ തന്നെയാണ് ആ ഉറൂസിൻ്റെ ടൈം ആകുമ്പോഴേക്കും ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഫുഡ് കിട്ടും കഞ്ഞിണ്ടാന്ന് കഞ്ഞി പോലെ ഒരു സാധനം കിട്ടുന്നതാണ് അവിടെ നിന്നു തന്നെ പിന്നെ അവിടെ ഫുള്ള് വെറൈറ്റിയാണ് വേറെ വേറെ സ്ഥലമാണ് ആൾക്കാരെല്ലാം വരുന്നത് ആൾക്കാർ അല്ലെങ്കിലും എല്ലാ ദിവസവും ആടെ വരുന്നു പക്ഷേ ഈ വർഷത്തിൽ ഒരിക്കലാകുമ്പം നിറച്ച് ആൾക്കാരാണ് അത്രയ്ക്കും ആൾക്കാരാണ് സ്ഥലം ഉണ്ടാകില്ല പോകാനും വരാനുമുള്ള സ്ഥലമേയില്ല അത്രക്കും ബ്ലോക്കാണ് ആൾക്കാർ കാരണം അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ആൾക്കാറും വരുന്നുണ്ട് അന്ന് അടെ പോയിട്ട് എന്ത് ദുആ എരന്നാലും നമ്മളെ ദുആ എല്ലാം സ്വീകരിച്ച് തരുന്നതാണ് എല്ലാവരുടെയും വിശ്വാസം അതുകൊണ്ടു തന്നെ അത്ര തന്നെ ആൾക്കാരുണ്ട് ആടെ